ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴി പത്രങ്ങളിലൊക്കെ എന്നും കാണാൻ കഴിയുന്ന കാര്യമാണ് കർഷക ആത്മഹത്യ എന്നത് അതായത് എൻ്റെ അച്ഛനും ഒരു കർഷകനാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ലതു പോലെ അറിയാവുന്നതുമാണ് അതായത് ഒരു ക അവരുടെ ജോലിയെന്ന് പറയുമ്പോൾ തന്നെ ഈ മണ്ണിനെയും പിന്നെ എന്താ ക്ലൈമറ്റിനെയും ഒക്കെ എന്താ അടിസ്ഥാനമാക്കിയാണ് അത് പോകുന്നത് തന്നെ അപ്പം ഒരു വലിയ ഒരു മഴ വരികയോ ഇല്ലെങ്കിൽ കാലം തെറ്റിയുള്ള ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കാലം തെറ്റിയുള്ള പ്രകൃതി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പം അതിലൂടെയൊക്കെ തന്നെ ഒരു മഴ വരികയോ അങ്ങനെ കഠിനമായ വെയിൽ ഇതിലൂടെയൊക്കെ തന്നെ കൃഷി നശിച്ച് പോകുന്നുണ്ട് അപ്പം ഇവർക്ക് വേറെ മാർഗ്ഗങ്ങളില്ല പൈസ കിട്ടാൻ വേറെ മാർഗ്ഗങ്ങളില്ല അതുകൊണ്ട് തന്നെ പല ലോണുകളെടുക്കുകയും അവരുടെ കാര്യ ക്രഷ് കൃഷി നടത്താൻ തന്നെ പല ലോണുകളെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ പൈസയുടെ ഇന്നത്തെ കാലത്ത് ഒത്തിരി പൈസ വേണമല്ലോ ഓരോ കാര്യങ്ങളും നടന്ന് പോകാൻ അപ്പം ഈ പൈസയുടെ ക്ഷാമം മൂലം തന്നെ ഇതൊക്കെ തിരിച്ചടക്കാൻ കഴിയാതിരിക്കുകയും ഗവൺമെൻറ്റിൽ നിന്നും പല സഹായങ്ങൾ സഹായ വാഗ്ദാനങ്ങൾ നൽകുകയും പക്ഷേ അതൊന്നും പലർക്കും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് അടക്കാൻ കഴിയാതിരിക്കുകയും സാമ്പത്തികമായി അവർ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയും വേറെ വഴിയില്ലാതെ ആത്മഹത്യയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഇത് പ്രതി ഇത് പരിഹരിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റും അല്ലാണ്ടുള്ള സംഘടനകളൊക്കെ കർഷകർക്ക് വേണ്ടിയിട്ട് സബ്സിഡികളും ലോണുകളുമൊക്കെ കൂടുതൽ വാഗ്ദാനം നൽകിയാൽ പോരാ അത് പ്രാവർത്തികമാക്കി കാണിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വിധത്തിൽ ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു